ഇന്ത്യയിലെ ഗതാഗത സംവിധാനം ശരിക്കും വെല്ലുവിളികൾ നേരിടുന്നത് തന്നെയാണ് വെല്ലുവിളികൾ നേരിടുന്നത് തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു യാത്രാ സൗകര്യം എടുത്തു നോക്കിയാൽ ഇപ്പോൾ റോഡ് അതായത് നമ്മുടെ ഗതാഗത സൗകര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനമുണ്ട് പ്ലെയ്ൻ ഉണ്ട് അതുപോലെ തന്നെ ട്രെയിനുണ്ട് ബോട്ടുണ്ട് അപ്പോൾ ഇതേ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ റോഡ് ഗതാഗതം സംബന്ധിച്ചിടത്തോളം മൊത്തം കുണ്ടും കുഴിയും പിടിച്ചു കിടക്കുന്ന റോഡുകളാണ് നമുക്ക് ഉള്ളത് കൂടുതലും ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ വന്നു നമ്മുടെ ഭരണം നടത്തിയാൽ പോലും അതിന് ഒരു മേന്മ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഫ്ലൈറ്റ് തന്നെ എടുത്തു നോക്കിയാൽ ഫ്ളൈറ്റിൽ ൽ എപ്പോഴും ചാർജ് കൂടുതലാണ് ഫ്ലൈറ്റ് ടിക്കറ്റിന് നല്ല ചാർജ് തന്നെയാണ് ഇപ്പോൾ റെയിൽവേ സംവിധാനത്തിൽ വൃത്തിയുള്ള ഒരു റെയിൽവേ സംവിധാനം അല്ല വൃത്തിയുള്ള സംവിധാനം എന്നു പറഞ്ഞത് എ സി കമ്പാർട്ട്മെൻ്റ് പോലെ അത് എല്ലാ സാധാരണക്കാരായ മനുഷ്യർക്ക് സാധിക്കണം എന്നില്ല അവിടെ എപ്പോഴും തിരക്കും കാര്യങ്ങളും എന്നാണ് നിത്യേനെ ജോലി തിരക്കുകളിൽ പോവുന്ന മനുഷ്യർ നിന്നും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടി തന്നെയാണ് ട്രെയിൻ യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ് നമ്മൾ നമുക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളി എന്ന് പറയുന്നത്